പോലീസ് സ്റ്റേഷനാണോ ഞാൻ ഇങ്ങനെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പം എൻ്റൊരു ബാഗ് മിസ്സായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കമ്പ്ലൈൻ്റ് തരാൻ വേണ്ടിയായിരുന്നു പൈസ ഉണ്ടായിരുന്നു ഒരു മൂവായിരം രൂപയുണ്ടായിരുന്നു എൻ്റെ ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ ഒരു റേഷൻ കാർഡ് എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി പ്ലസ്ടു കോപ്പി പിന്നെ ഡിഗ്രീ കോപ്പിയുണ്ടായിരുന്നു പി ജീൻ്റെ ഒരു സർട്ടിഫിക്കറ്റുണ്ടായിരുന്നു പൈസ മിസ്സായാലും കുഴപ്പമില്ലായിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെയൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു ഞാനിവിടെ വയനാട്ടിലാണെൻ്റെ വീട് ഞാൻ കോഴിക്കോടു നിന്ന് ട്രയിനിൽ കയറിയതാണ് ആ ട്രെയിനിൽ വച്ച് മിസ്സായിപ്പോയി ആ അതെ അതെ ആ ഫോണില്ല ഫോണെൻ്റെ കയ്യിലായിരുന്നു അടയാളം കണ്ടാല്ലറിയും തീർച്ചയായും

പിന്നെ അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് അന്വേഷിക്കാൻ തുടങ്ങുക ആ ഒന്ന് പരാതി തന്നാൽ എഴുതി എടുക്കുമോ എന്നാൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾ അന്വേഷിക്കുക എനിക്ക് കുറച്ച് അർജൻ്റായിട്ട് കിട്ടേണ്ടതായിരുന്നു എനിക്ക് വേറൊരു ആവശ്യത്തിനുവേണ്ടി ഇതാക്കാൻ വേണ്ടി ആയിരുന്നു

ആ എത്ര ദിവസത്തേക്കാണ് പിന്നെ എത്ര ദിവസംകൊണ്ട് റെഡിയാവും

ആ എനിക്കൊരു ഞായറാഴ്ച്ച ആവുമ്പഴത്തേക്കും കിട്ടിയാൽ നല്ലതായിരുന്നു ആ ഇന്ന് വ്യാഴായ്ച്ചയാണ് എന്നാൽ ഓക്കെ സർ